വയനാട് ജില്ലയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പൊതുവെ ആഘോഷിക്കുന്നത് ശിവരാത്രി ആഘോഷിക്കാറുണ്ട് പിന്നെ ദീപാവലി ഇങ്ങനത്തെ കാര്യങ്ങള് പിന്നേ ഇപ്പം നമ്മളെ ഹിന്ദുക്കളിൽ തന്നെ ഏറ്റവും നല്ലോണം ആഘോഷിക്കുന്നത് ദീപാവലീന്നു പറഞ്ഞ ആഘോഷാണ് ഇപ്പൊൾ എല്ലാവരും ദീപം തെളിയിച്ചും പടക്കം പൊട്ടിച്ചും അങ്ങനെ ആഘോഷിക്കും പിന്നെ മലയാളികള് കൂടുതലും ആഘോഷിക്കുന്നത് ഓണം ഓണം ആഘോഷിക്കാറുണ്ട് ഓണം നല്ല രീതിയിലാണ് ആഘോഷിക്കുന്നത് അതായത് നമ്മുടെ മഹാബലി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് നമ്മളെ ജനങ്ങളെ കാണുന്ന ഒരു ചടങ്ങായിട്ടാണ് മഹാബലിയെ ഓണം ഓണത്തെ വിശേഷിപ്പിക്കുന്നത് പിന്നേന്നു വെച്ചുകഴിഞ്ഞാല് അതായത് ദീപാവലി ദീപാവലീന്നു പറഞ്ഞു കഴിഞ്ഞാല് ദീപങ്ങള് തെളിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുന്നതാണ് ദീപാവലി തമിഴ്നാട്ടിലാണ് കൂടുതലും നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് ദീപാവലിയാണ് പിന്നെ മഹാശിവരാത്രി ആഘോഷിക്കാറുണ്ട് ശിവരാത്രിന്നു പറഞ്ഞുകഴിഞ്ഞാല് ശിവനന്ന് ഉറങ്ങുന്ന ഉറങ്ങാതിരിക്കുന്ന ഒരു സമയാണ് ആ സമയത്ത് ശിവരാത്രിന്നു വേണമെങ്കിൽ പറയാം പിന്നെ നമ്മളെ മുസ്ലിംസിൻ്റെ ഈദുൽ ഫിത്തർ അതായത് രണ്ട് ഈദുൽ ഫിത്തറുണ്ടവർക്ക് അതായത് വലിയ പെരുന്നാളുമുണ്ട് ചെറിയ പെരുന്നാളുമുണ്ട് ചെറിയ പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയില് അതായത് നല്ല രീതിയില് ആഘോഷിക്കുന്ന ഒരു ഈദുൽ ഫിത്തർ ആണ് ഈ വലിയ പെരുന്നാളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നേ ബലിപിരുന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത് അതായത് നമ്മള് ഈ പോത്തിനെയൊക്കെ അറത്ത് അവര് ബലിനൽകുന്നു അതിനെയാണ് ബലിപെരുന്നാൾ എന്നു പറയുന്നത് പിന്നെ അന്താരാഷ്ട്ര കോഫി ഫെസ്റ്റിവൽ ഒക്കെ നടക്കുത്തുന്നുണ്ട് അതായത് നമ്മളെ തന്നെ എന്താ പറയാ പലതരം ചായകളും കാപ്പികളും അങ്ങനത്തെ ഫെസ്റ്റിവെലൊക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വയനാട് ജില്ലയിലും പിന്നെ നമ്മടെ കേരളത്തിലും നടക്കുന്ന പ്രധാന ഉത്സവങ്ങളും പരിപാടികളൊക്കെ